ഈ കല്യാണമെന്നൊക്കെ പറയുമ്പോള് ഒരുപാട് പേര് വരുന്നതാണ് കല്യാണത്തിന് അപ്പോള് ഈ വലിയ വലിയ ഈ ചടങ്ങില് വെള്ളമൊക്കെ ക്രമീകരിക്കുന്നതിനു നമ്മള് എന്താണു ചെയ്യേണ്ടതെന്നുവച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോള് ഈ ടാപ്പും കാര്യങ്ങളൊക്കെ വയ്ക്കാന് വേണ്ടിയിട്ടാണ് ടാപ്പിനെ ഒന്ന് കുറഞ്ഞ രീതിക്ക് വെള്ളം വരുന്ന രീതിയില് ഫോഴ്സും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു വയ്ക്കണം അതേപോലെ ഇപ്പോള് പിന്നെ അനാവശ്യമായിട്ട് വെള്ളം ചെലവാക്കാത്ത രീതിയില് നമുക്കടയ്ക്കുന്ന സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ അമിതമായി വെള്ളം പാഴാക്കരുതെന്നെക്കെ പറഞ്ഞു വയ്ക്കാം അല്ലെങ്കില് നമുക്ക് കപ്പും കാര്യങ്ങളൊക്കെ യൂസെയ്യാം ടാപ്പെന്നു പറയുമ്പോള് ടാപ്പ് തുറന്നങ്ങുവച്ച് കൈ കഴുകുന്നതുവരെ എന്താക്കാം വെള്ളം ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണു ചെയ്യുന്നത് അതേസമയം നമുക്ക് കപ്പൊക്കെ വയ്ക്കാമെന്നുവച്ചാല് നമ്മള് കോരിയാണു കഴുകുന്നത് എന്നുവച്ചാല് നമുക്കധികം വെള്ളമിവിടെ വേസ്റ്റാവില്ല അങ്ങനെ നമുക്ക് വെള്ളം ക്രമീകരിക്കാൻ പറ്റും പിന്നെ അതേപോലെ നമുക്ക് വെള്ളം ഈ ഇതില് സ്റ്റോര് ചെയ്തുവയ്ക്കാൻ പറ്റും ഇപ്പോള് എന്തേലും ടാങ്ക് ബാരല് കന്നാസ് അങ്ങനത്തെ എന്തേലും കാര്യങ്ങളിലൊക്കെ നമുക്ക് വെള്ളം സ്റ്റോര് ചെയ്തുവയ്ക്കുകയാണേലും അതും നമ്മളീ വെള്ളം ഇതാക്കിവയ്ക്കുന്നതിനു ഹെൽപ്ഫുള്ളാണ് കുഴപ്പമില്ല അതൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമുക്ക് വെള്ളമൊക്കെ ശേഖരിച്ചെടുത്ത് ഇതാക്കാൻ പറ്റും നമ്മള് മെയിനായിട്ട് ഈ ടാപ്പ് ഒഴിവാക്കിയിട്ടിങ്ങനെ കപ്പിലൊക്കെ കോരി കഴുകുന്നൊരു ഇതാണെങ്കില് നമുക്ക് വെള്ളം ഇതാക്കാം സേവ് ചെയ്യാം